മലയാളത്തിലെ പ്രധാന വാർത്താ ചാനലുകളെന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വൻറ്റി ഫോര് റിപ്പോർട്ടര് മനോരമ മാതൃഭൂമി ഇങ്ങനെ കുറെയേറെ ചാനലുകളുണ്ട് പക്ഷേ ഞാൻ ഏറ്റവുമധികം കാണുക ഏഷ്യാനെറ്റ് ന്യൂസാണ് വൈകുന്നേരം വരെയുള്ള അദ്ധ്വാനത്തിന് ശേഷം നമുക്ക് ഒൻപത് മണിയോടുകൂടി പ്രാർഥനയ്ക്കൊക്കെ ശേഷം വീട്ടിലിരുന്നത് കാണാൻ പറ്റും വളരെ കൃത്യമായിട്ട് നമുക്ക് വാർത്ത കാണാം അപ്പോൾ മെയിൻ തലക്കെട്ടുകളും അതിൻ്റെ വിശദാംശങ്ങളും എല്ലാമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്താവതരണം നമുക്കത്ര തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ട്വൻറ്റി ഫോറിലേക്കാണ് അപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് കാണും അതിലെ അവതരണം കുഴപ്പമില്ല അത് അതുപോലെ പിന്നെ നമുക്കുള്ളത് റിപ്പോർട്ടർ റിപ്പോർട്ടറും നല്ല അവതരണമാണ് തന്നെയുമല്ല ഈ ടി വി ചാനലുകളിൽ ഞങ്ങളുടെ പ്രാദേശിക ചാനലുകാര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമത് റിപ്പോർട്ടറാണ് അപ്പോൾ ടി വി വെയ്ക്കുമ്പോൾ ഓണായി വരുന്നതുതന്നെ റിപ്പോർട്ടര് ചാനലാണ് നെക്സ്റ്റ് അടിച്ചുകഴിയുമ്പോൾ അപ്പോൾ തന്നെ ട്വൻറ്റി ഫോർ വരും അവിടെനിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പിന്നെയും കടന്നുപോകണം അപ്പോളിങ്ങനെ നമ്മള് വ്യത്യസ്തമായ ചാനലുകള് ഒരു ദിവസം മാറി മാറി കാണും ഉച്ചയ്ക്കാണെങ്കിലും ജോലിയുടെ ഇടവേളകളില് ആ ഒരു മണിക്കുള്ള വാർത്ത നമുക്ക് കാണാൻ പറ്റും അപ്പോള് ഒരു മണി വാർത്ത നമുക്ക് ഒത്തിരിയേറെ പ്രയോജനപ്രദമാണ് അതുപോലെത്തന്നെ ഇപ്പോള് എലക്ഷൻ സമയമൊക്കെയാണെങ്കിൽ വാർത്താ ചാനലുകളില് തൽസമയം ആര് ലീഡ് ചെയ്യുന്നു എവിടെ ലീഡ് ചെയ്യുന്നു എത്ര വോട്ടിന് ലീഡ് ചെയ്യുന്നു ഇങ്ങനെ സദാ അവരതിൻ്റെ പിന്നാലെ പായുകയാണ് മാധ്യമങ്ങളുടെ ഒരു പരക്കംപാച്ചിൽ വാർത്തകളുടെ ആ ഒരു നൈരന്തര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തിരിയേറെ വാർത്തകളുടെ നൈരന്തര്യം വരുന്നുണ്ട് അപ്പോള് ആ വാർത്തകളുടെ നൈരന്തര്യത്തിന് വേണ്ടി ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന തുടർച്ച അപ്പോളത് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് രണ്ട് പെൺകുട്ടികളെ കാണാതായിയെന്നുള്ള വാർത്തയാണെങ്കിൽ ആ തിരുവനന്തപുരത്ത് നിന്ന് കാണാതാകുന്ന പെൺകുട്ടികള് അവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ മുതല് അവരെങ്ങോട്ടു പോയി ആരൊക്കെയാണ് അവരുടെ കൂടെയുള്ളത് അവരെന്തൊക്കെ ചെയ്യുന്നു ഇനി അവരോടൊപ്പം ഉള്ള ആൺകുട്ടിയേത് അവര് ഏത് ട്രെയിനിലാണ് കയറിപ്പോയിരിക്കുന്നത് അവര് മുംബൈയിൽ എത്തിയിട്ടുണ്ട് മുംബൈയിൽ അവര് ബ്യൂട്ടി പാർലറിൽ കയറിയിരിക്കുന്നു ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് അവരെങ്ങോട്ട് പോകുന്നു തുടങ്ങിയ സദാ ഇതിൻ്റെ പിന്നാലെ വാർത്താ മാധ്യമങ്ങൾ പോകുന്നതുകൊണ്ട് നമുക്ക് വാർത്ത വളരെയേറെ ഈസിയായിട്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാർ മേഖല ഞങ്ങള് ഇടുക്കിയായതുകൊണ്ട് ഇടുക്കിയില് മൂന്നാർ മേഖലയിലൊക്കെ ആന വനത്തിൽ നിന്നും ഇറങ്ങി നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കടുവ നാട്ടിലെത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമൊക്കെ സാധിക്കും ആന ഇപ്പോള് പടയപ്പ നാട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ പടയപ്പയുടെ പിന്നാലെയാണ് പിന്നെ മാധ്യമങ്ങൾ അപ്പോൾ പടയപ്പയുടെ പിന്നാലെ മാധ്യമങ്ങളെന്നതുപോലെ നമ്മളും ഇങ്ങനെ ആ വാർത്തയിൽ ഒഴുകിപ്പോകുകയാണ് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും വിവിധങ്ങളായ പത്രമാധ്യമങ്ങളും മനോരമ മംഗളം മാതൃഭൂമി വീക്ഷണം ദേശാഭിമാനി തുടങ്ങിയ വിവിധങ്ങളായ പത്രങ്ങളുണ്ട് അപ്പോള് ഈ പത്രങ്ങളും നമുക്ക് വാർത്ത പക്ഷേ പത്രങ്ങളിലെ വാർത്ത ഒരൽപ്പം ചൂടാറിയതാണ് തന്നെയുമല്ല അതിലൊരു ഈ കഥാതന്തു പോലെ ഒരു ചില കൂട്ടിച്ചേര്ക്കലുകള് ഇഴപിരിക്കലുകളൊക്കെയുണ്ട് അപ്പോൾ അതിലീ കഥ പറയുന്ന ലാഘവത്തോടെയാണ് ചില റിപ്പോർട്ടർമാര് പത്രവാർത്തകൾ എഴുതിപ്പോകുന്നത് അപ്പോളാ കഥ എപ്രകാരം ആണ് മെനഞ്ഞെടുക്കാൻ പറ്റുന്നത് ചിലതിൽ അതിശയോക്തി കാണും പത്രമാധ്യമങ്ങൾക്ക് പലപ്പോഴും രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ടെന്നിരിക്കും അപ്പോള് ഈ രാഷ്ട്രീയ പക്ഷപാതിത്വം പത്രമാധ്യമങ്ങളിൽ വരുന്നത് വലിയൊരു പ്രശ്നമാണ് ഈ വാർത്തകളുടെ സത്യസന്ധത അത് വിശ്വസ്തത അത് പുലർത്താൻ പലപ്പോഴും ഇപ്പോൾ ആധുനിക മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ വാർത്തകളോട് അവനവൻ കൊടുക്കുന്ന വാർത്തകളോട് പക്ഷപാതമില്ലാതെ പെരുമാറുവാൻ അല്ലെങ്കിൽ എങ്ങനെയത് റിപ്പോർട്ട് ചെയ്യുവാൻ മാധ്യമപ്രവർത്തകര് ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രമാണ് ആ വായനക്കാരന് അതിനോടുള്ള അഭികാമ്യതയെന്ന് പറയുന്നത് വായനക്കാരന് ഒത്തിരിയേറെ പത്രങ്ങള് വായിക്കുന്നവനല്ല അവനൊരു ദിവസം ഒരു പത്രം അല്ലെങ്കിൽ രണ്ട് പത്രം ഇങ്ങനെയാണ് പത്രം വായിക്കുക അങ്ങനെ പത്രം വായിക്കുമ്പോൾ വായനക്കാരൻ്റെ പ്രതികരണങ്ങൾക്ക് അവന് അവസരമില്ല ടി വി ചാനല് കണ്ടുകഴിഞ്ഞാല് അവന് വേണമെങ്കിൽ പ്രതികരണങ്ങള് തത്സമയം ഓൺലൈൻ ന്യൂസൊക്കെയാണെങ്കിൽ അതിൽ അയയ്ക്കാൻ പറ്റും പക്ഷേ പത്രമാധ്യമത്തിലെ വാർത്തകൾക്ക് പ്രതികരണമില്ല നമുക്ക് പ്രതികരണം അറിയിക്കാനുള്ള മാർഗങ്ങൾ പിന്നെ കത്തെഴുതിയയച്ച് ദിവസങ്ങളോളം കഴിഞ്ഞാണ് അതിൻ്റെ പ്രതികരണം നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ഈ വാർത്താ ചാനലുകളും അതുപോലെ അതിനുപുറമേ ചിലപ്പോൾ സിനിമ കാണും സിനിമ ചാനലുകളിലേക്ക് ചിലപ്പോൾ കടക്കാറുണ്ട് അപ്പോള് സിനിമ കാണുകയെന്ന് പറയുമ്പോള് നമുക്കൊരു നേരമ്പോക്കും ഉല്ലാസവുമാണ് അതുപോലെ പാട്ട് ചാനലുകള് പാട്ട് ചാനലുകളും നമുക്കൊരുല്ലാസമാണ് അപ്പോള് പാട്ടെന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള പാട്ടുകളാണ് പലപ്പോഴും നമ്മള് വെയ്ക്കുക അപ്പോൾ അതുകാരണം കുട്ടികള് വീട്ടിലുള്ളതുകൊണ്ട് അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന പാട്ട് അവര്ക്കും കൂടി ഇഷ്ടപ്പെടുന്ന പാട്ടെന്ന് പറഞ്ഞാല് ഇപ്പോൾ അടിപൊളി പാട്ടുകള് മാത്രമായിരിക്കണമെന്നില്ല അവരുടേതായ കാലഘട്ടത്തിലുള്ള പാട്ടുകള് ശ്രദ്ധിക്കുന്നു അവരത് വെയ്ക്കുന്നു അതുപോലെ ക്രിക്കറ്റ് കളിയുണ്ട് ക്രിക്കറ്റ് കളി വെയ്ക്കുന്നു ഇങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലകളില് അതുപോലെ സിനിമ സിനിമയാണെങ്കിലും ആധുനിക സിനിമയെന്ന് പറയുന്നത് ഒരു ഞങ്ങളുടെ പ്രായക്കാർക്ക് അത്രമേൽ രുചികരമാകുന്നൊരു കാര്യമല്ല ആധുനിക സിനിമകള് കൊലപാതകങ്ങളുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം വൈകൃതങ്ങൾ ചിത്രീകരിക്കുക ഇതൊക്കെ ആധുനിക സിനിമകളുടെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ആധുനിക സിനിമാ ലോകം നമുക്ക് ടി വിയിലേക്ക് അതും കൂടി മനുഷ്യൻ്റെ മുറിക്കുള്ളിൽത്തന്നെ വരുമ്പോൾ ഒരു തലമുറയ്ക്ക് തന്നെ ദോഷം സംഭവിക്കുന്നുണ്ടോയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു തലമുറകളെ നശിപ്പിക്കാനും തലമുറകളെ നേർവഴിക്ക് കൊണ്ടുവരുവാനും ഈ ടി വി ചാനലുകൾക്ക് കഴിയും അപ്പോൾ ടി വി ചാനലുകള് തലമുറകളെ നേർവഴിയില് കൊണ്ടുവരാൻ ഒരുപാട് മാർഗ്ഗങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല അവരുടെ ഇമേജിന് വേണ്ടി അവരുടെ ചാനലുകൾ കൂടുതലാളുകൾ കാണുന്നതിന് വേണ്ടി അത് നൊരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ടി വി ചാനലുകൾ അധികമായിട്ട് നടത്തുക അല്ലാതെ അതിനോട് നൂറ് ശതമാനവും സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുന്ന ടി വി ചാനലുകളുടെ എണ്ണം തുലോം വിരളമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു